ആ അതെ അതെ അതെ ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി ഓക്കെ ഓക്കെ ഇപ്പം അതയോ വൈകുന്നേരം സമയം എപ്പഴാണ് അതെ അല്ലേ ഓക്കെ ഞാന് അപ്പം ആ നാളെ അപ്പോൾ നമ്മൾ എങ്ങനെയാ സാറിനെ പിക്ക് ചെയ്യാൻ വരണോ അതോ സാറ് ഇങ്ങോട്ട് വരുമോ എത്ര പേരുണ്ട് മ്മ് അപ്പോൾ നമ്മുടെ പേക്കേജിന് അകത്ത് വരുന്നത് രണ്ടുദിവസത്തെ പരിപാടി ആണ് ഏകദേശം ഒരു ഏഴായിരം രൂപയുടെ പരിപാടിയാണ് വരുന്നത് അതിൽ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് വള്ളസദ്യ കൂടണം എന്ന് പറഞ്ഞില്ലായിരുന്നോ ആറന്മുള ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ ദിവസം വള്ളസദ്യ കൂടാവുന്ന രീതിയിൽ വരാവുന്നതാണ് അപ്പം ആ അത് നമ്മൾ ആ പേക്കേജിൽ തന്നെ നമ്മൾ കഥകളിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ കഥകളി മോഹിനിയാട്ടം കാണണം എന്ന് ആ അത് അപ്പോൾ നമ്മൾ ആലപ്പുഴയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആലപ്പുഴ ഈ കഥകളി നടക്കുമ്പോൾ തന്നെ ബോട്ടിൽ അത് ബോട്ടിൽ തന്നെ ആണ് നമ്മള് നടത്തുന്നത് ഹൗസ്ബോട്ട് കേട്ടിട്ടില്ലേ ആലപ്പുഴ ആ അപ്പോൾ അതിൽത്തന്നെ ആണ് നടത്തുന്നത് അത് അപ്പോൾ നമുക്ക് അത് ബോട്ടിങ്ങും നടക്കും കഥകളിയും കാണാം അപ്പോൾ അന്ന് കഥകളി കഴിഞ്ഞ് നമുക്ക് ആ ബോട്ടില് തന്നെ കിടക്കാവുന്നതാണ് ഫുഡും കാര്യങ്ങളും ഒക്കെ ആ അതിനകത്ത് പേക്കേജിനകത്താണ് വരുന്നത് കഥകളിയുടെ അപ്പോൾ ആ ഫുഡ് ഫുഡ് ഇന്ക്ലൂഡഡ് ആണ് ഇത് ഇപ്പോൾ ഈ പേക്കേജ് ഓഫര് വന്നേക്കുവാണ് അതാണ് അങ്ങനെ ഒരു റേറ്റ് വന്നേക്കുന്നത് ഏഴായിരം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ ഒരു റേറ്റ് ആണ് ആ അതിൽ അത് ഇല്ല അത് വേറെ വണ്ടിയുടെ ചാര്ജ് വേറെ വരുന്നുണ്ട് കാരണം നമ്മൾ ഇത്രയും അറിയാലോ ഇത്രയും പെട്രോളിന് തന്നെ ഇത്രയും വില റേറ്റ് ഉള്ള സമയത്ത് വണ്ടിയുടെ ചാര്ജ് നമുക്ക് മുതലാകത്തില്ല നമുക്ക് രാവിലെ ഇവിടുന്ന് വള്ളസദ്യ നമ്മുടെ വള്ളം അതായത് പള്ളിയോടം എന്ന് വിളിക്കുന്ന വള്ളം എടുക്കുമ്പോൾ പത്ത് മണിയാകും പത്ത് മണിക്ക് ഇവിടുന്ന് വള്ളത്തിൽ സാറിനെ ഇപ്പം ഞാൻ വള്ളത്തിൽ കൊണ്ടുപോവാനാണ് നോക്കുന്നത് കാരണം സാറിന് വള്ളത്തിലൊക്കെ വരുകയാണെങ്കിൽ സാറിന് കാമറ ഉണ്ടല്ലോ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ സാറിന് എടുക്കാവുന്നതാണ് നല്ലൊരു മെമ്മറി ആയിരിക്കും അപ്പം സാറിനെ വള്ളത്തിൽ കൊണ്ട് വരാം സാറിന്റെ ഫേമിലിയെ അതായത് സ്ത്രീകള്ക്ക് പ്രവേശനമില്ല വള്ളത്തിൽ ആ അപ്പം ആ പിള്ളേര്ക്ക് കൊണ്ട് വരാം അപ്പം സ്ത്രീകള്ക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് അവരെ നമ്മൾ ആറന്മുളയിൽ പാസ്സ് കൊടുത്ത് അറേഞ്ച് ചെയ്ത് നിര്ത്താം അപ്പോൾ നമ്മളെ വള്ളം വരുമ്പഴത്തേന് അവർ നമ്മളെ കൂടെ തന്നെ അവര്ക്ക് കഴിക്കാന് കയറുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന്റെ കോസ്റ്റ്യും ആയിട്ട് വള്ളത്തിൽ പോരുമ്പോൾ ഒരു മുണ്ടും തോർത്തും ആണ് വേണ്ടത് അത് കൂടെ ഒന്ന് നോക്കിക്കോണം അത് നിങ്ങൾ കൊണ്ട് നമുക്ക് നമുക്ക് തരണമെങ്കിൽ തരാം കുഴപ്പം ഒന്നും ഇല്ല ഇല്ല നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ വൈകീട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ് നാളെ ഇപ്പം വൈകീട്ട് വരും എന്നല്ലേ പറഞ്ഞത് ഏഴര ആകുമ്പോൾ ഏഴരയ്ക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് മണി ആവുമ്പോൾ തന്നെ ഇവിടെ എത്തും ആറന്മുളയിൽ തന്നെ നമ്മൾ ഒരു സ്റ്റേ പറഞ്ഞിട്ടുണ്ട് അന്ന് വൈകീട്ട് നമ്മുടെ ഫുഡ് ഉണ്ട് ആ ഫുഡും കഴിഞ്ഞ് അന്ന് തന്നെ പിറ്റേ ദിവസം രാവിലത്തേക്ക് ആണ് ആറന്മുള വള്ളസദ്യയുടെ കാര്യം പോവുന്നത് ഈ നമുക്ക് ഒരു അഡ്വാന്സ് വേണം സാറെ അഡ്വാന്സ് വേണം ആ അതെ അതെ ആ ഒരു ഫോര് തൗസന്റ് നാലായിരം രൂപയോളം ഒരു അഡ്വാന്സ് നമുക്ക് വേണം നമ്മുടെ പേക്കേജിനകത്ത് ഉള്ളതാണ് ഈ രണ്ട് ദിവസത്തെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വേണേലും പോകാം ഈ ആലപ്പുഴയിലെ കഥകളിയും ബോട്ടിംഗും ഇല്ലേ ആ ദിവസം മൂന്നാമത്തെ ദിവസം സാർന് എവിടെയെങ്കിലും പോവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് സാറിനെ അത് ഒരു ഗൈഡിനെ അറേഞ്ച് ചെയ്ത് വിടാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ സാറെ ആ ടിക്കെറ്റിന്റെ സമയം ഒന്ന് ഇട്ടേക്ക് നമ്മുടെ ടാക്സി ഡ്രൈവറെ നമ്മൾ അറേഞ്ച് ചെയ്ത് വിട്ടേക്കാം അതെ അതെ അതെ അതെ